ഏതൊരു എഴുത്തുകാരനും അല്ലെങ്കിൽ ഏതൊരു എഴുത്തുമാകട്ടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ആശയമെന്നുള്ളത് ആശയങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താറ് അല്ലെങ്കിൽ ആശയങ്ങൾ കണ്ടെത്താറ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് ആശയങ്ങൾ ഒരു നാമൊരു മാർഗ്ഗത്തിലൂടെ പോയിട്ട് ആശയങ്ങളുടെ അടുത്തേക്കെത്തുകയല്ലല്ലോ ആശയങ്ങൾ നമ്മെ തേടി വരികയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിനൊരു ഒരു കവി ഒരു കഥ അല്ലെങ്കില് ഒരു നോവല് അല്ലെങ്കിലൊരു ലേഖനം ഒരു ലേഖനമാണെങ്കിൽ അതിൻ്റെ ആശയം വര്ഗീയതയെ തുപ്പുന്ന ഒരു വര്ഗീയതയെ എങ്ങനെയൊക്കെയാണ് ഈ സമൂഹം ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഏ ഇതൊരു ആശയമാണ് ഇപ്പോളൊരു നോവലാണെങ്കിൽ ഒരു കുട്ടി ഒരു സ്വർണ്ണം തപ്പി ഒരു നിധി തപ്പി പോകുന്നൊരു കുട്ടി അതാണ് അതിൻ്റെ ആശയം അങ്ങനെയുള്ള ധാരാളം ആശയങ്ങളും ലേഖനകളും നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആശയങ്ങളുള്ള എല്ലാം അതിൻ്റേതായ ആശയങ്ങളുണ്ടല്ലോ അപ്പോള് ആ ഈ എഴുത്തുകാര് എങ്ങനെയാണ് ആശയങ്ങള് കണ്ടെത്താറ് ആശയങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ആശയങ്ങളുണ്ടാവുക അങ്ങനെയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നത് അല്ലാതെ നമ്മള് ആശയങ്ങൾ തപ്പിപ്പോകുന്ന അവസ്ഥകള് സാധാരണ ഏതൊരു മനുഷ്യനും ഉണ്ടാവാറില്ല പിന്നെ അതിന് ഉപയോഗിക്കുന്ന വിദ്യകളോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ ഉണ്ടോന്ന് ചോദിച്ചാല് എൻ്റെ ഒരു അഭിപ്രായത്തില് അതിന് വിദ്യകളോ തന്ത്രങ്ങളോ ഇല്ല ആശയങ്ങള് ലഭിക്കാന് കാരണം ആശയങ്ങള് എവിടെനിന്നാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം നമുക്കിപ്പോഴൊരു ഈ സ്ഥലത്ത് ഈ സമയത്ത് ഒരാശയം വരും നാം അവിടെ പോയാൽ മതി ഇല്ല അങ്ങനെ ഉണ്ടാവുകയില്ല സ്വാഭാവികമാണ് പക്ഷെ ആശയങ്ങൾ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളില്പ്പെട്ടതാണ് യാത്ര ചെയ്യുകയെന്നുള്ളത് ധാരാളം യാത്രകൾ ചെയ്യുക യാത്രകളിലൂടെ നമുക്ക് ധാരാളം ആശയങ്ങൾ ലഭിച്ചുവെന്ന് വരാം കാരണം ഒരു യാത്രയില് മനുഷ്യൻ മറ്റൊരു ജീവിതമാണ് ജീവിക്കുന്നത് യാത്രയിലൂടെ കാരണം അവൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളില്പ്പെട്ടതായിരിക്കും യാത്രകളെന്നുള്ളത് അപ്പോള് ആ യാത്രകളിലൂടെയാണ് അവന് ജീവിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എഴുത്ത് നിങ്ങളെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെഴുതുമ്പോൾ അതിലേറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത് അവൻ്റെ കുടുംബക്കാരോ കൂട്ടുകാരന്മാരോ നൽകുന്ന പ്രചോദനങ്ങളുണ്ടാകും അത് ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്നതാണ് പോരാത്തതിന് ഇപ്പോഴുള്ള സമൂഹങ്ങളിലെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അത് എഴുത്തുകളിലൂടെയും പറയുന്നവരുണ്ട് അങ്ങനെ ധാരാളം വാക്കുകളിലൂടെയും പറയുന്നവരുണ്ട് അതിൽ എഴുത്തുകളിലൂടെ പറയുന്നത് ധാരാളം ആളുകളിലേക്ക് എത്തുന്നുമുണ്ട് അപ്പോള് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കില് ഓരോ സംസ്കാരങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ളതൊക്കെ എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രചോദപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് ആ എഴുത്തിൻ്റെ ഘടനകൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന നാമൊരു ഓരോ വാക്കും നമ്മളെ പ്രചോദിപ്പിക്കും അല്ലെങ്കിൽ ഓരോ നോട്ടവും നമ്മളെ പ്രചോദിപ്പിച്ചെന്ന് വരാം ഒരു സ്വാഭാവികമായ നിമിഷത്തില് നാമൊരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോള് ആ മനുഷ്യന് നമ്മുടെ എഴുത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നീ ഇങ്ങനെയൊക്കെ നേരെയാക്കിയാല് റെഡിയാകുമെന്ന് മനുഷ്യൻ പറയുകയാണെങ്കില് അതാണ് അതൊരു മനുഷ്യന് പ്രചോദനമായെന്നുവരാം